ആ മാഡം ഒരു ഇൻഷുറൻസ്ൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ പുതിയ ഒരു ഇൻഷുറൻസ് വന്നിട്ടുണ്ടേ അപ്പോൾ ഇൻഷുറൻസിൻ്റെ പേര് വന്നിട്ട് ജീവൻ ബീമായോജന നമ്മുടെ സെൻട്രൽ ഗവണ്മെൻറ്റ്ൻ്റെ തന്നെ ഒരു ഇൻഷുറൻസ് ആണ് ഇത് നമുക്ക് അറുപത് വയസ് വരെയാണ് അടവ് വരുന്നത് അപ്പോൾ ലൈഫ് അല്ല ഇൻഷുറൻസ് ആണ് നമ്മുടെ ഫുൾ ലൈഫിൻ്റെ ഇൻഷുറൻസ് ആയിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് തന്നെ അല്ലേ നോക്കുന്നത് പറഞ്ഞത് അതോ ഇനി വേറെ ഏതെങ്കിലുമാണോ ആ അല്ല അത് തന്നെ അതിപ്പോൾ നമുക്കിപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ ടെംസ് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ആറ് മാസം കൂടുമ്പോൾ ആണ് അടവ് വരുന്നത് ആയിരം ആ മന്ത്ലി അല്ല ആറ് മാസം കൂടുമ്പോഴാണ് അടവ് വരുന്നത് ആയിരം രൂപയാണ് അടവ് ഓക്കേ അപ്പോൾ നമുക്ക് ഒരു വർഷം രണ്ടായിരം രൂപ അടവ് വരും അത് നിങ്ങള് എപ്പോഴാണോ തുടങ്ങുന്നത് ഇപ്പോൾ ഏത് ഏജിലാണോ തുടങ്ങുന്നത് ഇപ്പോൾ പതിനെട്ട് വയസാണെങ്കിലും ആറു അറുപത് വയസ്സിൻ്റെ ഏത് ഏജ്ലാണെങ്കിലും ഇതാണ് അടവ് വരുന്നത് അത് നിങ്ങൾക്ക് ആ അറുപത് വയസ് കഴിഞ്ഞാൽ നമുക്കത് പെൻഷൻ പോലെ നമുക്കത് കിട്ടും മാസം ഇത്ര രൂപ വെച്ചിട്ട് ഓക്കേ അപ്പോൾ ഇല്ല അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ആക്സിഡ ഈ അറുപത് വയസ് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കത് കിട്ടും പൈസ നമുക്ക് പെൻഷൻ പോലെ ഏത്രയാണോ നിങ്ങൾ അടച്ചത് അതിനനുസരിച്ച് നമുക്ക് കിട്ടും നമ്മൾ ഇപ്പോൾ പതിനെട്ട് വയസ് ചേർന്ന് പറയുമ്പോൾ അത്രയും വർഷം അടക്കാന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് ഉണ്ടാവുവല്ലോ അപ്പോൾ നല്ല ഒരു തുക മാസം പെൻഷൻ പോലെ നമുക്ക് കിട്ടും സ്റ്റാർട്ടിങ് അല്ല ആറ് മാസം കൂടുമ്പോൾ ആയിരം രൂപ അത് നമുക്കിപ്പോൾ എത്രയാണോ ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ പാതിനെട്ട് വയസ് ചേർന്നാ പറഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത് വയ ആളാണെങ്കിൽ ചേരുന്നതെന്ന് പറഞ്ഞാൽ അറുപത് വയസ് വരെ മുപ്പത് വയസ്സ് മുപ്പത് ഇയർ ആണെല്ലോ അപ്പോൾ ആ മുപ്പത് ഇയറില് നിങ്ങൾ എത്രയാണോ അടവ് വരുന്നത് അതിന് അനുസരിച്ചിട്ട് എമൗണ്ട് അതിന് ശേഷം എമൗണ്ട് നിങ്ങൾക്ക് പെൻഷൻ പോലെ കിട്ടും ഓക്കേ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പകർച്ചവ്യാധികൾ ഒഴികെ ബാക്കി ആ എല്ലാം ആ എല്ലാത്തിനും ഇത് ഉപകാരപ്പെടും അതിന് വേണ്ടിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഈ പകർച്ച പറഞ്ഞോ ആ പെൻഷൻ ആ ടോട്ടൽ ആയിട്ടല്ല നമുക്ക് കുറച്ച് മാ ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് അക്കൌണ്ടേയ്ക്ക് വരും പെൻഷൻ പോലെ വരും ഓക്കേ അത് അക്കൌണ്ടേയ്ക്ക് വരും അതല്ല നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ അറുപത് വയസ്സിൻ്റെ ഇടയിൽ വല്ല ആക്സിഡന്റോ അങ്ങനെ എന്തേലും മരണപ്പെടുവാണെങ്കിൽ നോമിനിക്ക് ഈ പൈസ ഫുൾ ആയിട്ട് കിട്ടും കേൾക്കുന്നുണ്ടോ ആ അപ്പോൾ ഈ പൈസ ഫുൾ ആയിട്ട് നോമിനിക്ക് കിട്ടുന്ന പോലെ നമുക്ക് ഇതിപ്പോൾ മൊത്തം ടോട്ടൽ ഒരാള് ആക്സിഡന്റോ അല്ലെങ്കിൽ മരിക്കാണെങ്കിൽ മരണപ്പെടുവാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ആണ് ഈ ഇൻഷുറൻസിൻ്റെ ക്ലെയിം വരുന്നത് അപ്പോൾ നോമിനിക്ക് കിട്ടും അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പെൻഷൻ പോലെ ആ ടൈംൽ നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് ഇത് കിട്ടും അത് ഈ പറഞ്ഞപോലെ തന്നെ നിങ്ങള് ഈ അറുപത് വയസ് വരെ അടക്കുവല്ലോ ആ എമൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ആ പെൻഷൻ കിട്ടും ഓക്കേ ക്ലിയർ അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ചേരാൻ നമുക്കിപ്പോൾ കുറച്ച് ഡോക്യൂമെന്റ്സ് ഒക്കെ വേണം ആ പറഞ്ഞോളൂ ഇപ്പോൾ തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നാൽ മതി ഇപ്പോൾ കയ്യിൽ ഇല്ലെങ്കിൽ ഇനി വരുമ്പോൾ കൊണ്ട് തന്നാലും മതി നമുക്ക് ഇപ്പോൾ ആധാർ കാർഡ് വേണം അതേപോലെ പാൻ കാർഡ് പിന്നെ ആ ഫോട്ടോ വേണം ആ രണ്ട് ഫോട്ടോ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ ഫോട്ടോൻ്റെ ബാക്കിൽ ഉള്ളത് വൈറ്റ് തന്നെ വേണം ബാക്ക്ഗ്രൗണ്ടെ അപ്പോൾ ഈ ഇത് പിന്നെ ബാങ്ക് പാസ്സ്ബുക്കും അതിൻ്റെ കോപ്പി ഇതാണിപ്പോൾ വേണ്ടത് ഓക്കേ ക്ലിയർ അല്ലേ ഓക്കേ താങ്ക്യു ഓക്കേ നോക്കിയിട്ട് വിളിച്ചാൽ മതി ശരി